നമസ്കാരം ചേട്ടാ ഈ ചുറ്റുവട്ടത്ത് നല്ല വിൽപ്പനയുള്ള ഭക്ഷണത്തെക്കുറിച്ച് അറിയാൻ വന്നതാണ് ഹോട്ടലുകളിലും മറ്റ് ഓൺലൈനായി വിൽക്കപ്പെടുന്ന സ്ഥാപനങ്ങളിലൂടെ പോകുന്നതുമായ ഏറ്റവും വില്പനയുള്ള ഭക്ഷണ വസ്തുക്കളെ പറ്റി അറിയാനാണ് ഞാൻ വന്നത് ഇവിടെ പ്രാദേശികമായി കിട്ടുന്ന രുചിയുള്ള ഭക്ഷണം ഏതാണെന്ന് ചേട്ടന് എനിക്ക് പറഞ്ഞു തരാൻ കഴിയുമോ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആസ്വദിക്കുന്നതും മറ്റു സ്ഥലങ്ങളിൽ അധികം ലഭ്യമല്ലാത്തതുമായ ഭക്ഷണം കഴിക്കാനാണ് എനിക്കാഗ്രഹം അതിനെക്കുറിച്ച് അറിയാനാണ് ഞാൻ വന്നത് ഇവിടെ വരുമ്പോൾ ഇവിടെ പുറത്തുനിന്ന് വരുന്ന ഒരാൾ പുതിയതായി നോക്കണ്ടതും കഴിക്കേണ്ടതുമായ ഭക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു നല്ല കാര്യമായിരിക്കും ഇങ്ങനത്തെ ഭക്ഷണത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞ് തരാൻ ചേട്ടന് കഴിയുമോ ഇവിടെ ഹോട്ടല്കളിൽ ബിരിയാണിയും ഫ്രൈഡ് റൈസും എല്ലാം നല്ല രീതിയിൽ വിൽപ്പനയുള്ളതാണെന്ന് ഞാൻ കേട്ടറിവുണ്ട് അത് അങ്ങനെ തന്നെയാണോ ശരിക്കും അങ്ങനെ നല്ല വില്പനയുള്ള ഭക്ഷണങ്ങൾ ഇവിടെ അതൊക്കെ തന്നെയാണോ എന്നെനിക്കറിയാനാഗ്രഹമുണ്ട് നല്ല ഭക്ഷണം മനുഷ്യർക്ക് നല്ലൊരു ജീവിതാന്തരീക്ഷം പ്രാപ്തമാക്കാൻ വളരെയധികം മുഖ്യമായൊരു മാണല്ലോ അപ്പോള് അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഭക്ഷണങ്ങളെ കുറിച്ച് അറിയാനാഗ്രഹമുണ്ട്